അങ്ങനെ ഒരു മതത്തിനോടും അങ്ങനെ പ്രത്യേക ഇഷ്ടമില്ല എല്ലാ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ഉള്ള ഇതാണ് കൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആണേൽ ക്രിസ്മസിന് ഹിന്ദുക്കളാഘോഷിക്കാറുണ്ട് ഇസ്ലാമുകളാഘോഷിക്കാറുണ്ട് പിന്നെ പെരുന്നാൾ പെരുന്നാളുകൾക്ക് ഇപ്പം നമ്മളാണേലും അവിടെ പോയി കഞ്ഞിയൊക്കെ കുടിക്കും നമ്മൾ നമ്മളതാഘോഷിക്കും പിന്നെ വിഷുവിനാണേലും ഓണത്തിനാണേലും എല്ലാവരും മലയാളികളെല്ലാരും കൂടെ ഒരുമിച്ച് ആയിരിക്കും ആഘോഷിക്കുന്നത് അ അല്ലാതെ ഹിന്ദുവെന്നോ മുസ്ലീംസെന്നോ ക്രിസ്ത്യൻസെന്നോ അങ്ങനൊരു വേർതിരിവ് കാണിക്കേണ്ട കാര്യം ഇല്ല അങ്ങനെ കാണിക്കുന്നുമില്ല പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനാണ് വഴക്കിട്ടോണ്ടിരിക്കും എന്നാലും മതമെന്ന് പറയുമ്പോൾ അത് ഒരു കാറ്റഗറി മാത്രമാണ് അത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഒരേ ചോരയാണ് അപ്പോൾ എന്തുവാണ് അങ്ങനെ മതത്തിൻ്റെ ഈ എനിക്ക് പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ഇല്ല മത മത മതത്തിൻ്റെ ഇതിലും ഉപരി മനുഷ്യത്വം മതി മനുഷ്യന് ജീവിക്കാൻ എന്നാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്